ആ ചെറിയത് ചെറിയ സൈക്കിളാണോ അതോ വലിയതാണോ വലിയവർക്കാണോ ചെറിയ കുട്ടിക്കാണോ

ആ അതെ ആ ആ ആ അപ്പോൾ നിങ്ങൾക്ക് ആ ടയറൊക്കെ നല്ല ഇതുള്ള സൈസാണോ വേണ്ടത് ആ അ അ ആ ആ നിങ്ങള് വാങ്ങിയിട്ട് വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളെന്തേലും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒര് മാസത്തിൻ്റെ ഉള്ളിലായിത്തന്നെ എന്തേലും പ്രശ്നങ്ങള് വരികയാണേൽ ഞങ്ങള് പറയാം

ആ അത്രയുമേ ഉണ്ടാവുകയുള്ളു കൂടുതലൊന്നും ഉണ്ടാവില്ല ആ അ അപ്പം ആ വേറെ വേറെ മോഡലുകളൊക്കെ നോക്കുന്നുണ്ടോ നിങ്ങൾ എന്നാൽ കടയിലേക്ക് ഒന്ന് വ കടയില് സാധനങ്ങളൊക്കെ കണ്ടില്ലെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുടെ ഗോഡൗണിലുണ്ട് വേറെയും സൈക്കിളുകളൊക്കെ ഉണ്ട് ഉം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് മോഡലാണ് അല്ല ഞങ്ങളൊര് മാസത്തെ അവധി കൊടുക്കും അത് ഇപ്പം ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ കടയിൽ നിന്ന് വന്നാല് ആരെന്ത് വാങ്ങിയാലും നമ്മള് ഇനി ഇപ്പം അതിൻ്റെ ഈ ഒര് മാസത്തിനുള്ളില് എന്ത് പ്രശ്നം വന്നാലും നമ്മളത് റിപ്പെയർ ചെയ്ത് കൊടുക്കേണ്ടതാണേൽ അങ്ങനെ ചെയ്യും അതല്ല മാറ്റി കൊടുക്കേണ്ടതാണെങ്കില് എന്ത് ഡാമേജ് വന്നാലും ഞങ്ങളത് തിരിച്ചെടുത്ത് ഐശ്വര്യമാക്കി കൊടുക്കും ഉം ഉം അല്ല അതല്ല നല്ല കമ്പനീൻ്റെ സാധ ആ അതല്ല അത് നമ്മൾ എന്നാല് അങ്ങനെ വലിയ കമ്പ്ളെയ്ൻറ്റൊന്നും ഞങ്ങളിതു വരെ അങ്ങനെ ആരും റിപ്പോട്ട് ചെയ്തിട്ടില്ല നമ്മളുടെ കടയിൽ നിന്ന് സാധനങ്ങള് വാങ്ങിയവര് അതാ മേഡം ഞങ്ങളാരെയും പറ്റിക്കു പറ്റിക്കുകയില്ല പക്ഷേ അതെന്ന് പറഞ്ഞാല് ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊര് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവുകയുള്ളു നല്ല കമ്പനി സാധനങ്ങളാണ് ഞങ്ങൾ ഇറക്കുന്നത് ലോക്കലൊന്നും അല്ല അപ്പോഴെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങള് വരികയാണെന്നുണ്ടെങ്കിൽ വരില്ല വന്നാൽ തന്നെ നമ്മളത് തിരിച്ചതിൻ്റെ എല്ലാ പിന്നെ കേടുകളും തീർത്തിട്ടേ കൊടുക്കുള്ളു പിന്നേന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് നമ്മളെ നമ്മൾ തന്നെ അവരേ അവരുടെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ ഓടിക്കലും എല്ലാ അതും കാണിച്ച് കൊടുത്തിട്ടാണവര് ആർക്കായാലും നമ്മളത് പർച്ചേസ് ചെയ്യുകയുള്ളു ഉം പിന്നെ ഇനി അതിന്റെ ഇടയില് എന്തെങ്കിലും നിങ്ങൾ സാധനം കൊണ്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്ന് ഉണ്ടെങ്കില് ഒര് മാസത്തിന്റെ ഉള്ളിൽ നിങ്ങള് അത് കടയിൽ തന്നെ കൊണ്ട് ചെന്നാൽ നമ്മളത് അതിൻ്റെ തിരിച്ചെടുക്കേണ്ടതാണെങ്കി തിരിച്ചെടുക്കും അതല്ല വേറെ അങ്ങനെ എന്തേലും റിപ്പേറ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും അതിലൊന്നും നിങ്ങൾ ഒരു പ്രശ്നം വിചാരിക്കേണ്ട നിങ്ങള് ധൈര്യമായിട്ട് സാധനം കൊണ്ടുപോയ്ക്കോളും ഏ അപ്പം ആ ആയിക്കോട്ടെ ആ അല്ല ഇപ്പം നിങ്ങൾ ഇപ്പം പറയുന്ന ഈ ഒര് ആ കമ്പനീൻ്റെ ഈ സാധങ്ങൾ തന്നെയാണ് കൂടുതലും പോകുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ആ മോഡല് സൈക്കിളാണത് അപ്പം അവർക്ക് ഈ ഈ അതൊക്കെ നമ്മളെ കാട്ടിൽ അറിവാണ് അതെ നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് അതെ അതേ ആ അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ആ ഒര് പേടിയും പേടിക്കണ്ട നിങ്ങള് ധൈര്യമായിട്ട് കൊണ്ടുപൊയ്ക്കൊ പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഇപ്പം എല്ലാവരും ഈ ഒര് സൈ ഈ മോഡല് സൈക്കിൾ തന്നെയാണ് കൊണ്ടുപോകുന്നതും കേട്ടോ ആ ആ ഓക്കെ എന്നാൽ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ വന്നോളു എന്നാൽ ശരിയേ